സ്റ്റാമ്പുകളും നാണയങ്ങളും കല്ലുകൾ ശേഖരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെയൊരു വിനോദമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എങ്കിലീ കളക്ഷൻസ് നമുക്കൊരിക്കലും തീർച്ചയായിട്ടും പഴയ കാലഘട്ടങ്ങളിലേക്കും പഴയ ഓർമകളിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും കാര്യം ഇപ്പോള് പഴയ നോട്ടുകള് അതുപോലെ തന്നെ പഴയ നാണയങ്ങള് ഇതൊന്നും ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് സുപരിചിതമായിട്ടുള്ള കാര്യമല്ല ഈ സുപരിചിതമല്ലാത്ത കാര്യം ഈ നാണയങ്ങള് ഒക്കെ കാണിച്ചുകഴിയുമ്പോൾ ഇങ്ങനെയൊരു കാര്യം നമ്മുടെ നാട്ടില് രാജ്യത്ത് നിലനിന്നിരുന്നുവെന്നുള്ളതും അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതുമാണ് ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ കാലഘട്ടങ്ങളിലാണ് ജീവിക്കുന്നത് മുഴുവനും ക്യാഷ്ലെസ് ആയിട്ടുള്ള പേയ്മെൻറുകളാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും പൈസ അല്ലെങ്കിൽ നാണയങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് പരിയപ്പെടുത്തി കൊടുക്കാം അങ്ങനെ അതുവഴി അവർ ഈ അറിവ് എപ്പോഴും ഷെയര് ചെയ്യുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം അതുപോലെ തന്നെ മാനസിക സന്തോഷം ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്റ്റാമ്പുകൾ സ്റ്റാമ്പുകള് വിവിധ പ്രത്യേക ഈവൻറ്സിനോട് അനുബന്ധിച്ച് നമ്മള് സ്റ്റാമ്പുകള് കളക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റൽ പോസ്റ്റലിലെ ലെറ്ററുകളുകളിൽ നിന്നൊക്കെ സ്റ്റാമ്പുകള് കളക്റ്റ് ചെയ്ത് അതിന്റെ വാല്യൂ ഒക്കെ അനുസരിച്ച് നമ്മൾ വെയ്ക്കാറുണ്ട് ഈ ശേഖരിക്കുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസികാരോഗ്യത്തിന് നല്ലതാണ്